ആ ഹലോ

ആ അതെ അതെ പറയൂ പറയൂ മെൻസ് ആ നമുക്ക് മെൻസ് എന്ന് നമുക്ക് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തുനിന്നുള്ള തുണി എടുക്കുന്നതാണ് നമുക്ക് ഇപ്പം ആ നോർമൽ ക്വാളിറ്റിസിലാണ് നമ്മൾ എടുക്കാറ് പിന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി സാധനം നമ്മൾ പുറത്തുനിന്ന് ഇറക്കാറുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ നിങ്ങൾ പറയുന്ന കോസ്റ്റും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ചെയ്ത് തരിക ആ ആക്ച്വലി ഇൻഡ്യൻ ഇൻഡ്യൻ കോസ്റ്റുംസ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ബട്ട് നമുക്ക് അത് കിട്ടാൻ കുറച്ച് പാടാണ് നമുക്ക് കളക്ട് ചെയ്യാൻ ടൈമ് കുറച്ച് കൂടുതൽ വേണ്ടി വരും കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു ടു മന്ത്സ് ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ലിസ്റ്റ് കിട്ടുവാണെ നമുക്ക് അത് ചാർട്ട് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും

ആ അപ്പം നമ്മൾ ചെയ്യുന്ന തുണിയുടെ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും ഏറ്റവും ലോ ലോ ക്വാളിറ്റി എങ്ങനെ വച്ചാലും ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡിന് നമുക്ക് ഹോൾസെയിൽ എടുത്ത് തരാൻ പറ്റും ലോ ക്വാളിറ്റി അല്ല നോർമൽ ക്വാളിറ്റി ഓക്കെ അപ്പം നമുക്ക് റേറ്റ് കുറച്ചുകൂടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമായിരിക്കും ചാരിറ്റി ബേസ്ഡ് നമുക്ക് അതനുസരിച്ച് എന്തെങ്കിലും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒന്നാണ് ആ ഹ ഹ ഒരു ടെൻ ആ നിങ്ങളൊരു ടെൻ തൗസൻഡ് മിനിമം ഒരു ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ഇതിൽ ഉള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾ നമ്മളുടെയിൽനിന്ന് പർചേയ്സ് ചെയ്താലേ നമുക്കൊരു വർത്തും നിങ്ങൾക്കും അത് കൊണ്ടൊരു വർത്ത് ഉണ്ടാവത്തുള്ളൂ

ആ ആ നമുക്ക് ഇപ്പം സാധനത്തിന് വേണ്ട സൈസ് ഇപ്പം മീഡിയത്തിൽ എത്ര ലാർജിൽ എത്ര എക്സ് എല്ലിൽ എത്ര അതിൻ്റെ ഷർട്ട് പീസുകൾ എത്ര എങ്ങനത്തെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെല്ലാം നോക്കിയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് പറഞ്ഞാലും മതി ഓക്കെ ഒക്കെ താങ്കൾ എനിക്ക് ഈ നമ്പറിൽ നമ്പറിൽ വാട്സപ്പില് ലിസ്റ്റ് ഫോർവേർഡ് ഞാൻ അതെല്ലാം ഒന്ന് നോക്കി കളക്ട് കളക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ എല്ലാം ഒന്ന് ഷെഡ്യൂള് ചെയ്തിട്ട് തനിക്കൊരു എസ്റ്റിമേറ്റഡ് റേറ്റ് ഞാൻ ഇട്ടുതരാം എന്നിട്ട് താൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കളക്ട് ചെയ്യാം ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓക്കെ ശരി